ആ ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ കുറേ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിലാണെങ്കിലും പറമ്പിലൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുക അതായത് നമ്മൾ ചിരട്ട പിന്നെ പൊട്ടിയ പാത്രങ്ങളൊക്കെ നമ്മൾ പറമ്പിലേക്ക് വലിച്ചെറിയാറുണ്ട് ആ വെള്ളം അതിലൊക്കെ മഴ പെയ്യുമ്പോൾ അതിലൊക്കെ കുറച്ചു വെള്ളം ഉണ്ടാകും ആ വെള്ളത്തിലൊക്കെ കൊതുക് മുട്ടയിടാനൊക്കെ സാദ്ധ്യത ഉണ്ട് ആ കൊതുക് മുട്ടയിടുമ്പോഴാണ് കൊതുക് മുട്ടയിട്ട് പിന്നെ അത് കൊതുകായി പറന്നു വന്ന് നമ്മളെ കടിക്കും അപ്പോഴാണ് നമുക്ക് ഓരോ രോഗങ്ങളൊക്കെ വരുന്നത് പിന്നെ കൊതുകെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും നമ്മുടെ എച്ചിലിൽ ആണെങ്കിലും ബാത് റൂമിൽ അവിടെ ഇവിടെയൊക്കെ വേസ്റ്റിലൊക്കെ പോയി ഇരുന്നിട്ട് ഇരിക്കാൻ ഈ കൊതുകൊക്കെ വരുന്നത് അങ്ങനെ നമ്മുടെ മേത്ത് വന്നിരുന്ന് നമ്മളെ കടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് നമുക്ക് അതുമൂലാണ് നമുക്ക് ഡെങ്കിപ്പനി മലേറിയ ഒക്കെ വരുന്നത് അതിന് നമ്മൾ അതാ ചെയ്യേണ്ടത് പിന്നെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കൊതുകുതിരി ചന്ദനത്തിരി പിന്നെ ഗുഡ് നൈറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഓ അപ്പം ഇത് കത്തിച്ചു വെച്ച് കണ്ട് നമ്മൾ കൊതുകിനെ തൊരത്തുകയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ പിന്നെ ആ കൊതുക് കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിലും മുതിർന്നവർക്കാണോ ആർക്ക് കടിച്ചാലും അപ്പം നമുക്ക് അസുഖങ്ങൾ വരും അതിന് ഇങ്ങനെയൊക്കെ പ്രതിരോധിക്കാനെ പറ്റുകയുള്ളൂ